ആ ഹലോ ആ ഹലോ മാം അവിടെ പെഡിക്യൂർ ചെയ്യുന്നുണ്ടോ ഓക്കേ മാം അപ്പോൾ അതിൻ്റെ പൈസ് പൈസ ഒക്കെ എങ്ങനെയാണ് ഓക്കേ നമുക്ക് എങ്ങനത്തെ ഫെയ്സ് ഉള്ളവർക്കാണ് നമ്മള് കൂടുതലായി ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ എങ്ങനത്തെ ഫെയ്സ് ഉള്ളവരാണ് ലൈറ്റ് സ്കിൻ ഉള്ളവരാണോ അതോ ഡ്രൈ സ്കിൻ ഉള്ളവരാണോ ആ എന്നാൽ ചെയ്യാം നമ്മള് ഓക്കെ നമ്മൾ എത്ര ടൈം പിടിക്കും ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ആണല്ലേ അപ്പോൾ ഷോപ്പ് എപ്പോഴാണ് ഓപ്പണിങ് ഓക്കെ ഓക്കെ എന്നാൽ പറഞ്ഞത് പോലെ ആ മേടം ആണല്ലേ ഓക്കെ ഓക്കെ ഒക്കെ താങ്ക്യൂ മാം ആ ചെയ്തേക്കാം മാം ആ ഒക്കെ താങ്ക്യൂ മാം ആ ഓക്കെ